ഒരു കുടുംബത്തിലെ സ്ത്രീയുടെയും പുരുഷൻ്റെയും കടമകൾ എന്താന്ന് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ കടമകളാണ് പക്ഷെ നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത് എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അടുക്കള ജോലി ആ പുരുഷന്മാർക്ക് ഭാരപ്പെട്ട ജോലികൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നുമല്ല സ്ത്രീകളും പുരുഷനും തുല്യമായിട്ട് ജോലിചെയ്യുന്ന കാലമാണ് അടുക്കളയിലെ ജോലിയാണെങ്കിൽ സ്ത്രീകളെ സഹായിക്കാൻ പുരുഷന്മാരും വലിയ ഭാരപ്പെട്ട ജോലികൾക്ക് എന്ത് ജോലിക്കും സ്ത്രീയും പുരുഷനും സപ്പോർട്ടായി നിൽക്കുന്ന ഒരു ഇതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ചുമതലകളിൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കിട്ടിയതോട് കൂടി ഇന്നത്തെ സമൂഹം പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ഇന്നത് പുരുഷന് ഇന്നത് എന്ന ജോലികൾ ആ ഒരു ശീലം ശൈലി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ ഇന്ന് മുന്നിട്ട് വരുന്ന സൊസൈറ്റിയിലോട്ട് ഇറങ്ങി വരുന്ന ഒരു സമയമാണ് അത് കൊണ്ടുതന്നെ അവർക്ക് ഇന്ന ജോലി ഇന്നതെ അവര് ചെയ്യുക അടുക്കളയിൽ തളച്ചിടേണ്ടതാണ് അല്ലെങ്കിൽ അടുക്കള ജോലി ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ടവരാണ് എന്നുള്ള തോന്നലുകളൊക്കെ ഇന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അത് ഒരു പ സൊസൈറ്റിയിലെ ഒരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് പിന്നെ പുരുഷൻ്റെത് എന്ന് വെച്ചാൽ പുരുഷന്മാര് ജോലിക്ക് പോകുക സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുക അങ്ങനത്തെ ഒരു മൈൻഡ് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞത് ഏറ്റവും വളരെ ഒരു ഹെല്പ്ഫുള്ളാണ് സൊസൈറ്റിയുടെ ഒരു ഇംപ്രൂവ്മെന്റിനെ തന്നെയാണ് കാണിക്കുന്നത്